യാത്ര പോയത് പഴനിക്കാണ് അതു ട്രെയിനിലാണ് പോയത് ട്രെയിനിൽ പോയിട്ട്

അവിടെ എത്തി പഴനിയിലെത്തി എത്തിയിട്ട് രാത് വൈകുന്നേരത്താണ് എത്തിയത് അവിടെ നല്ല തിരക്കുള്ള സമയമായിരുന്നു ആ തിരക്കിൽ പെട്ടു ഞങ്ങൾ മ പഴനിയിൽ അങ്ങനെ തൊഴുതു രാത്രിയിൽ എന്നാന്ന് തിരിച്ചു പോന്നു തിരിച്ചു വീണ്ടും റൂമിൽ വന്നു റൂമിൽ വന്ന് പിറ്റേന്നും ഞങ്ങൾ പഴനി മല കയറി തൊഴാൻ രാവിലെ പോയി തൊഴാൻ തിരിച്ച് പിന്നെ തിരിച്ചു വൈകുന്നേരം നേരത്തെ തിരിച്ചു പോന്നു തിരിച്ചു പോന്നിട്ട് പോന്നു പിന്നേ ട്രെയിനിലന്ന് പിറ്റേന്നു തൊട്ട് ട്രെയിൻ പാലക്കാടൻ ട്രെയിൻ പഴനിക്കുള്ള ട്രെയിൻ നിർത്തലാക്കണ് അതുകൊണ്ട് ട്രെയിനിലും ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ തിരക്കി ആണ് തിരിച്ചു പോന്നത് ഭയങ്കര തിരക്കായിരുന്നു സീറ്റ് പോലും കിട്ടിയില്ല ഇരിക്കാൻ നി നിൽക്കുവായിരുന്നു ചെയ്തത് അങ്ങനെ പിന്നേ

ബസ്സിൽ ബസ്സിലാണ് പോയത് ബസ്സിൽപ്പോയി അവിടെയെല്ലാം കണ്ടു

പിന്നെ

എന്നിട്ട് തൊഴുതു പോന്നു

പിന്നെന്താ പിന്നെ അവിടെ നിന്നു പോന്നു